ആ പറയൂ

നമുക്കിപ്പോൾ കാലത്ത് കപ്പയും പിന്നെ മത്തിയും അതൊരു പിന്നെ ഒരു എന്താണ് പറയുക ഓൾമോസ്റ്റ് ഒരു ലെവലിലെ ഒരു ഫുഡ് ആണത് റൈസ് വെച്ചിട്ട് റൈസ് വെച്ചിട്ട് റൈസ് മീൻസ് നിങ്ങളുദ്ദേശിക്കുന്നത് കടികളാണോ അല്ലെങ്കിൽ റൈസ് വിഭവങ്ങളാണോ ആ അതെ ഇടി ഇടിയപ്പം പിന്നെ ഇടിയപ്പം പുട്ട് ഇടിയപ്പം പുട്ട് പിന്നെ നൂൽപ്പുട്ട് അങ്ങനത്തെ ഐറ്റം വിഭവങ്ങൾ ഓ ഉണ്ടുണ്ടുണ്ടുണ്ടുണ്ട് കള്ളപ്പവും ബീഫുമാണ് കള്ളപ്പവും ബീഫുമാണ് നമ്മുടെ മെയിൻ കോമ്പിനേഷൻ

പുട്ടിൻ്റെ കൂടെ കടലക്കറിയുണ്ട് പിന്നെ മുട്ടക്കറിയുണ്ട് നോൺ വെജ് ആയിട്ടുള്ളത് ഇഷ്റ്റൂ അതായത് നമ്മുടെ ഉരുളക്കിഴങ്ങും ആ അത് വെജിൽ വരുന്ന സാധനമാണ് വെജിൽ വരുന്നതാണ് വെജിൽ വരുന്നൊരു ഐറ്റം ആണ് നോൺ വെജ് ആയിട്ട് ഫിഷ് ഫിഷ് ഐറ്റംസിൽ വരുന്നുണ്ട് പിന്നെ ചിക്കൻ ഐറ്റംസിൽ വരുന്നുണ്ട് നമുക്ക് ചിക്കൻ ഐറ്റംസിൽ ഒരുപാട് ഐറ്റം വരുന്നുണ്ട് ഫിഷ് ഐറ്റംസിൽ ഒരുപാട് വരുന്നുണ്ട് അതേപോലെ ബീഫ് ഐറ്റംസിൽ ഒരുപാട് വരുന്നുണ്ട് അപ്പോൾ ഏതാണ് നിങ്ങൾ സജഷൻ ചെയ്യുന്നത് അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നത് ഏതാണോ ആ റൂട്ടിലേക്കാണ് നമ്മൾ തിരിയുക ആണ് നമ്മൾ ഓർഡർ എടുക്കുന്നു ഒരു പതിനഞ്ച് മിനുട്ട് കൊണ്ട് സാധനം റെഡി ആക്കുന്നു ഓ വെൽക്കം വെൽക്കം വെൽക്കം വെൽക്കം യാ യാ ഓ ഒഫ് കോർസ് ഒഫ് കോർസ്

ഓ നിങ്ങൾ റൂം റൂം സൗകര്യം അങ്ങനത്തെ ആവശ്യമുണ്ടോ നിങ്ങൾക്ക് ഓ ഷുവർ ഷുവർ ഷുവർ ഷുവർ ഷുവർ ഷുവർ ഓ നമുക്ക് കേരളത്തിൻ്റെ പിന്നെ തനി നാടൻ വിഭവങ്ങളാണ് നിങ്ങളുദ്ദേശിക്കുന്നതെങ്കിൽ അതുണ്ട് പിന്നെ ട്രഡീഷണൽ കേരളത്തിൻ്റെ ട്രഡീഷണൽ ആയിട്ടുള്ള ഫുഡ് ആണ് വേണ്ടതെങ്കിൽ അതുണ്ട് പിന്നെ ഇറ്റാലിയൻ മോഡൽ ആണെങ്കിൽ അതുണ്ട് പിന്നേ ചൈനീസ് വിഭവങ്ങൾ അതുണ്ട് കേരള ഫുഡ് ഓക്കെ ആ ആ കേരള ഫുഡിൻ്റെ കോംബോ നമ്മൾ പറയണോ ഓ ഷുവർ ഓക്കെ ഓക്കെ ഓക്കെ ഓക്കെ ഓക്കെ ഓക്കെ ഓക്കെ ഓക്കെ